കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആളുകൾ തിങ്ങി പാർത്ത് നട പാർക്കുന്ന ഒന്നാണ് കോഴിക്കോട് ഇപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണക്കാർ പിന്നെ ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സുണ്ട് പിന്നെ ഓട്ടോ റിക്ഷയുണ്ട് ടാക്സിയുണ്ട് ജീപ്പുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാരും നമുക്ക് വേഗംഎത്താൻ നമ്മൾ ആശ്രയിക്കുന്നത് ട്രെയിനിനാണ് കേട്ടോ ട്രെയിൻ നമുക്ക് നമ്മുടെ നാട്ടിൽക്കൂടി പോകുമ്പോൾ വേറെ സ്റ്റോപ്പുകളൊന്നുമില്ലല്ലോ നമുക്ക് ഇവിടെ നിന്ന് കയറിയാൽ മിതമായ പണിക്കൂലി അധികം നമുക്ക് വേറെ പൈസ അധികം വരുന്നില്ല ഓരോ സ്റ്റേഷന്ന് ഓരോ സ്റ്റേഷനിലേക്ക് വളരെ കുറവായിട്ടുള്ള നിരക്കേ വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേരൊക്കെ ഞങ്ങൾ കൂടുതലും പിന്നെ ട്രെയിനിനാണ് കേട്ടോ പിന്നെ വിമാന വിമാനത്താവളം പിന്നെ അടുത്തു തന്നെയാണ് റോഡുകൾ നല്ല റോഡുകളാണ് പിന്നെ എ എല്ലാംകൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളികളൊന്നുമില്ല എല്ലാം സാധാരണ ടാക്സിക്കാർക്ക് ടാക്സി ഓടിക്കുന്നവർ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നോരും ഇപ്പോൾ നമുക്ക് ഒരുവിധ ലഗ്ഗേജൊക്കെ ഉണ്ടെങ്കിൽ ടാക്സിക്കാരെ ആണല്ലോ വിളിക്കുക വാടക കാറുകൾ എടുത്ത് പോകുന്നവരുണ്ട് റിക്ഷകളുണ്ട് ഓട്ടോ റിക്ഷകളുണ്ട് എല്ലാ സംവിധാനമുണ്ട് റോഡും നല്ല റോഡാണ്